ഹലോ ആ മോഹനാ ഹോട്ടലല്ലേ ഞാനെ രാവിലെ ഒരു പത്തുമണിക്ക് ഒരു പത്ത് പൊറോട്ടയും രണ്ട് ചിക്കൻ കറിയും ഓർഡർ ചെയ്തിരുന്നു അപ്പോഴതെ അത് ഒരു കാര്യം ചെയ്യൂ ഈ പത്ത് ഒരു ഗസ്റ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ അവര് വരുന്നില്ല ഇപ്പം വരുത്തില്ല അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ ഈ അഞ്ച് പൊറോട്ടയും ഒരു ചിക്കൻ കറിയും ക്യാൻസൽ ആക്കുക ക്യാൻസൽ ആക്കിയിട്ട് അഞ്ച് പൊറോട്ടയും അഞ്ച് ഒരു അഞ്ച് പൊറോട്ടയും ഒരു ചിക്കൻ കറിയും മതി എനിക്ക് ഓക്കേ അഥവാ ഇനി ബൈ ചാൻസിനു തിരിച്ചു വരുമെന്ന് പറഞ്ഞെങ്കിൽ ഞാന് അങ്ങോട്ട് കോൾ ചെയ്തിട്ട് പറയാം എനിക്ക് കുറച്ച് എക്സ്ട്രാ സാധനം വേണം അപ്പോൾ അത് കാണുമായിരിക്കുമോ ഉണ്ടോ ഓക്കേ കുഴപ്പമില്ല അപ്പോൾ അത് ഫോൺ ചെയ്തു ഇപ്പം ഞാൻ ചിലപ്പം ഒരു പന്ത്രണ്ട് മണി ആകുമ്പോൾ അവിടെ വരും അപ്പോൾ ആ സാധനം ഈ അഞ്ച് അഞ്ച് പൊറോട്ടയും ഒരു ചിക്കൻ കറിയും പാഴ്സലാക്കി വയ്ക്കണം പിന്നെ അവിടെ എക്സ്ട്രാ ഇതുണ്ടായിരിക്കുമോ വെജിറ്റബിൾ കറി ഉണ്ടായിരിക്കുമോ ഉണ്ടോ അപ്പോൾ ഒരു ഒരു വെജിറ്റബിൾ കറിയും കൂടെ പാഴ്സൽ വേണം ഓക്കേ എന്നിട്ട് ഇത് നിങ്ങൾ അഥവാ ഇനി അത് നേരത്തെ റെഡി ആവുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ഫോൺ ചെയ്തു പറയുവോ പറയാവോ ആ കുഴപ്പമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്തേരെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ അസൗകര്യം ഉണ്ടെങ്കില് ഞാനങ്ങോട്ട് വന്നോളാം കേട്ടോ ഓക്കേ